ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും ഫാഷൻ ട്രെൻറ്റുകൾ നന്നായി സ്വാധീനിക്കാറുണ്ട് ബോളിവുഡ് ആണെങ്കിലും ടോളിവുഡ് ആണെങ്കിലും പുതിയ ഫാഷൻ എപ്പോഴും അവിടെ തരംഗം ആയിരിക്കും പക്ഷെ ഫാഷനിലെ തരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കഥാപാത്രങ്ങൾ മാത്രമല്ല പണ്ടുള്ള ആൾക്കാർ മുതൽ അതായത് രജനികാന്ത് ഫാഷനില് ഉറ്റുനിന്നൊരു പ്രതിഭയായിരുന്നു പുതിയ പുതിയ ഫാഷനുകൾ അക്കാലങ്ങളിലുള്ള എല്ലാതരം ഫാഷനുകളും അപ്പപ്പോൾ തന്നെ കൊണ്ടു വന്ന് ആൾക്കാരിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്ന ഒരു നല്ലൊരു നടനായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും പുതിയ പുതിയ ഫാഷനുകൾ പുതിയ ഫാഷനുകൾ നിർമിക്കുന്നതും താരങ്ങൾ തന്നെയാണ് ഒരു പുതിയ ഫാഷനോ അവരുടെ വസ്ത്ര നിർമ്മാതാക്കളുടെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കി അത് വിപണിയിൽ ഇറക്കുന്നത് തന്നെ ഈ താരങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ വസ്ത്ര സിനിമയിലെ വസ്ത്രത്തിന് സമാനമായ വസ്തുക്കൾ സൃഷ്ടിക്കാൻ എപ്പോഴും എല്ലാവരും ശ്രമിക്കും അങ്ങനെയാണ് പുതിയ പുതിയ ട്രെൻ്റുകൾ നിലവിൽ വരുന്നത്